ഹലോ ഇത് ഫൈ ഹലോ ഇത് സ്പൈസ് ഹോട്ടലല്ലേ ഇന്നെനിക്ക് ഒരൂ ഒരു ബർത്ത് ഡേ പാർട്ടി ഉണ്ടായിരുന്നു അതിന് വേണ്ടുന്നതായ ഫുഡ് ഐറ്റംസിനെ കുറിച്ചൊന്ന് അറിയാനായിരുന്നു ഏതൊക്ക കേക്ക് ഐറ്റംസാണ് ഉള്ളത് അതില് ആ കേക്ക് ഐറ്റംസില് ബാർബി ഗേൾ ഉണ്ടോ കുഞ്ഞിൻ്റെതാണ് കുഞ്ഞ് പൊടി കുഞ്ഞിൻ്റെയാണ് മൂന്ന് നാല് വയസൊക്കെ അപ്പോൾ ബാർബി ഗേളിനോടാണ് താൽപ്പര്യം അപ്പം ആ കേക്ക് വേണം ഒപ്പം ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണുള്ളത് കുഴിമന്തി ഉണ്ടോ കുഴിമന്തിയും അൽഫാം അത് പിന്നേ അങ്ങനെ ഉള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാനാണ് ഞാൻ വിളിച്ചത് അതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് വീട്ടിലെത്തിക്കുന്നത് നമ്മള് വരണോ അതോ അവിടന്ന് കൊണ്ടുവരികയാണോ ഇതിനൊക്കെയുള്ള ഒരു മറുപടി തരണേ